മലയാള ഭാഷയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായ ഹിന്ദിയുമായി ഒരു പരിധി വരെ താരതമ്യം ചെയ്യാമെങ്കിലും മുഴുവനായി അങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റുമെന്നൊരു അഭിപ്രായം എനിക്ക് പറയാൻ സാധിക്കില്ല ഹിന്ദി ഹിന്ദിയും മലയാളവും ഉൽഭവം അതിൻ്റെ രണ്ടിൻ്റെയും ഉൽഭവമെന്ന് പറയുന്നത് സംസ്കൃത ഭാഷയിൽ നിന്നാണെന്നാണ് ചരിത്രകാരന്മാരെല്ലാവരും പറയുന്നത് ഹിന്ദിയിലുള്ള പല വാക്കുകളും മലയാളത്തിലും മലയാളത്തിലുള്ള പല വാക്കുകൾ ഹിന്ദിയിലും സംസ്കൃതത്തിലുള്ള പല വാക്കുകള് ഹിന്ദിയിലും മലയാളത്തിലുമെല്ലാം ഒരുപോലെ വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഹിന്ദി സംസാരിക്കുന്ന ആളുകൾക്ക് മലയാളം പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് മലയാളിക്ക് മലയാളം സംസാരിക്കുന്നയാൾക്ക് ഹിന്ദി പഠിക്കുകയെന്നത് താരതമ്യേന എളുപ്പമുള്ളൊരു പ്രക്രിയുമായിട്ടാണ് കാണുന്നത് അതിന്റെ കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും ലിപികൾ തമ്മിലുള്ള വ്യത്യാസം മലയാള ഭാഷയുടെ ഒറിജിന് എന്നുപറയുന്നത് സംസ്കൃതവും കൂടാതെ തമിഴ് ഭാഷയിൽ നിന്നുള്ള ഇതിൻ്റെ സ്വാധീനം വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും തമിഴ് മലയാളം കന്നഡ തുടങ്ങിയ ഭാഷകളെല്ലാം ദ്രാവിഡ ഭാഷകളായിട്ടാണ് പൊതുവേ അറിയപ്പെടുന്നത് അപ്പോള് ഈ ദ്രാവിഡ ഭാഷകൾ സംസാരിക്കുന്നയാളുകള്ക്ക് ഹിന്ദി സംസാരിക്കാൻ താരതമ്യേന എളുപ്പമായിരിക്കും പക്ഷേ ഹിന്ദി സംസാരിക്കുന്നയാളുകള്ക്ക് ഈ ദ്രാവിഡ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതിന് എഴുതുന്നതിനും വായിക്കുന്നതിനും താരതമ്യേന ബുദ്ധിമുട്ട് കൂടുതലായി ഉള്ളതായിട്ടാണ് അറിയുന്നത് പിന്നെ മലയാളത്തെക്കാൾ കുറെക്കൂടെ പഴക്കമുള്ള ഒരു ഭാഷയായി അറിയപ്പെടുന്നത് ഹിന്ദിയാണ് അപ്പോള് ഹിന്ദിയുടെ ഹിന്ദി ഭാഷയിലാണ് കൂടുതലും ഇന്ത്യയില് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ രചിക്കപ്പെടുന്നതും ഭാഷാപത്രങ്ങൾ മാസികകൾ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ എന്നിവയെല്ലാം ഏറ്റവും കൂടുതലുള്ളത് പൊതുവേ ഹിന്ദിയില് ആണ് അപ്പോള് അതുകൊണ്ടുതന്നെ ഹിന്ദിയുടെ പ്രാധാന്യമൊട്ടും നമുക്ക് കുറച്ചുകാണാൻ സാധിക്കില്ല മലയാള ഭാഷയ്ക്കും അതിൻറ്റേതായ പ്രാമുഖ്യവും പ്രാധാന്യവുമെല്ലാമുണ്ട് മലയാള സാഹിത്യ ത്തില് നിന്നും ഉയർന്നുവന്ന ധാരാളം ലോകോത്തര നിലവാരമുള്ള എഴുത്തുകാരുമെല്ലാം ധാരാളമുള്ളതായി നമുക്കറിയാം അപ്പോളതിന് മലയാള ഭാഷയ്ക്കും അതിൻറ്റേതായ പ്രാമുഖ്യം വളരെയധികമുണ്ട് ഹിന്ദിയും മലയാളവും തമിഴും കന്നഡയും എല്ലാം ചേര്ന്ന ഒരു സങ്കരമായ ഭാഷകൾ നിലനിൽക്കുന്നത് ഇന്ത്യയുടെ പൊതുവായിട്ടുള്ള പൈതൃകത്തെയും സാംസ്കാരിക ഐക്യത്തെയും കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിനായി കഴിയുമെന്ന് നമുക്ക് പൊതുവേ പ്രതീക്ഷിക്കാം ഇന്ത്യയുടെ ജനസംഖ്യയിലെ ഏകദേശം ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം വരുന്ന ആളുകൾ മാത്രമേ മലയാള ഭാഷ സംസാരിക്കുന്നുള്ളൂ പക്ഷേ ഇന്ത്യയിലെ ഏകദേശം മുപ്പത് ശതമാനമാളുകള് സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ് അപ്പോൾ ഹിന്ദി ഭാഷയ്ക്ക് സ്വാഭാവികമായിട്ട് അതിൻറ്റേതായ പ്രാമുഖ്യം കൂടുതൽ കാണുന്നുണ്ട് അപ്പോള് ഒരു ഭാഷയും ഒരു ഭാഷയെക്കാളും വലുതല്ല ഒരു ഭാഷയും ഒരു ഭാഷയെക്കാളും ചെറുതുമല്ല അപ്പോള് അതുകൊണ്ട് തന്നെ മലയാളത്തിന് ഇന്ത്യയിൽ വളരെയധികം പ്രാമുഖ്യമുള്ള ഒരു ഭാഷയായിട്ടാണ് പൊതുവേ കാണപ്പെടുന്നത് ജനസംഖ്യാടിസ്ഥാനത്തിൽ നോക്കിയാല് ഏറ്റവും കൂടുതല് ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ പൊതുവേ കൂടുതലുള്ളത് മലയാള ഭാഷയിലാണ് അതുപോലെ സിനിമാ മേഖലയിലുമെല്ലാം അതിൻ്റെ സ്വാധീനം വളരെയധികം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്